ആ ഹലോ ഇത് ജല അതോരിറ്റി അല്ലെ വാട്ടർ അതോരിറ്റി അല്ലെ ആ ഞാൻ ഇവിടെ തോപ്രാംകുടിയിൽ നിന്നാണെ വിളിക്കുന്നത് അതായത് വാട്ടർ ബില്ല് അടയ്ക്കാനുള്ള ബില്ല് കിട്ടിയായിരുന്നു വാട്ടർ ബില്ല് കിട്ടിയായിരുന്നേ ജാനുവരി മാസത്തെ കിട്ടിയായിരുന്നു ജാനുവരിയിലെയും ഫെബ്രുവരിയിലെയും കിട്ടിയായിരുന്നു പക്ഷെ എങ്ങനെയാണത് അടക്കേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോയെന്നു അറിയാനായിരുന്നു അപ്പം നമ്മൾ നേരിട്ടവിടെ വരണമോ അല്ലാതെ ഈ ഓൺലൈനായിട്ട് അടക്കാൻ എന്തെങ്കിലും ഓപ്ഷനുണ്ടോ ഗൂഗിൾ പേയോ പേ റ്റി എമ്മോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷനുണ്ടോ ആ ഓക്കെ ഓക്കെ ആ ഗൂഗിൾ പേ ചെയ്യാൻ ഓപ്ഷനുണ്ടോ ഇല്ലേ ബാങ്കിലേക്ക് ഇടാനാണെങ്കിലോ ഏതു ബാങ്കാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫെഡറൽ ബാങ്കാണെങ്കിൽ അക്കൗണ്ട് നമ്പർ വേണോ അക്കൗണ്ട് നമ്പർ ഒന്ന് പ്രൊവൈഡ് ചെയ്യാമോ ഓ ഓക്കെ ഓക്കെ ഈ നമ്പറിലേക്കൊന്ന് സെൻ്റ് ചെയ്യാൻ പറ്റുമോ അപ്പം അങ്ങനെയാണെ പേയ്മെൻ്റ് ചെയ്തിരിക്കാമായിരുന്നു ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ സോ മച്ച്